വഴക്കവും ശക്തിയും കൂട്ടാൻ സ സൂര്യ നമസ്കാരം വളരേ നല്ലതാണ് എല്ലാ ദിവസവും ഞാൻ സൂര്യ നമസ്കാരം ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരം എല്ലാ തരത്തിലും വളയുകയും എനിക്ക് യാതൊരു വേദനയോ ശരീ ശാരീരികമായും വേദനയോ പ്രശ്നനങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എപ് മാത്രമല്ല ഏറ്റവും കൂടുതൽ വജ്രാസനം പത്മാസനം ഗോ മുഖാസനം മേരുദണ്ഡാസനം എന്നീ ആസനങ്ങൾ എല്ലാം ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിന് നല്ല വഴക്കവും ശരീരത്തിലെ കൊഴുപ്പുകളെല്ലാം ഇല്ലാതാവുകയും നമ്മുടെ ശരീരത്തിൽ നല്ല ശക്തിയും ഉണ്ടാവും ഈ ഒരു പ്രവർത്തികൾ ചെയ്യുന്നതിനും വളരേ എളുപ്പം സാധിക്കും ഏതെങ്കിലും ഒരു പ്രവർത്തി നമ്മൾ ചെയ്യുമ്പഴേക്കും നമ്മുടെ ശരീരത്തിന് ക്ഷീണമോ വ്യസനമോ വെ പ്രയാസമോ ഉണ്ടാവുകയും ചെയ്യുകയില്ല നിത്യമായി നമ്മൾ ആസനം ഏതെങ്കിലും കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ശരീരത്തിന് നല്ല ശക്തിയും വഴക്കവും ഉണ്ടാവും സൂര്യ നമസ്കാരം പതിമൂന്ന് പ്രാവശ്യം ചെയ്താൽ മാത്രം മതി ഒരു വ്യക്തിയുടെ ആരോഗ്യം നല്ല രീതിയിൽ ആവുന്നതിന് അതുകൊണ്ട് തന്നെ സൂര്യ നമസ്കാരം പ അതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു വ്യക്തിക്ക് ശാരീരികമായും മാനസികമായും ഒരു പ്രശ്നവും ഉണ്ടാവുന്നതല്ല